ഒരു ടൂറിസ്റ്റിപ്പോള് നമ്മളുട അടുത്ത് വന്നാല് നമ്മുടെ നാട്ടിൽ മെയിനായിട്ടുള്ള നമ്മള് കുട്ടനാടിലോട്ടാണ് പോവുന്നത് കാരണം കുട്ടനാട്ടിലാവുമ്പഴത്തേനേ വെള്ളത്തില്ക്കൂടെ ഉള്ള യാത്ര ഒരുവിധപ്പെട്ട എല്ലാ വ്യക്തികളും ഇഷ്ട്ടപ്പെടുന്ന അപ്പോള് നമ്മളൊരു ബോട്ട് എടുത്ത് അതിലിങ്ങനിരുന്ന് അതിൽ യാത്ര ചെയ്യുമ്പഴത്തേക്കിന് അവര് വെള്ള വെള്ളത്തിലെ ഓളങ്ങളും അതിലെ ആമ്പലും അങ്ങനെ സൈഡുകളിലുള്ള വീടുകളില് ആൾക്കാർക്ക് ആൾക്കാര് തുണി അലക്കുന്നു അല്ലെങ്കില് മീൻ കഴുകുന്നു അങ്ങനെ എന്നാ സൈഡിലുള്ള വീടുകള് അതില് എന്ന ഫലഫൂയിഷ്ഠമായ തെങ്ങും തേങ്ങായുമൊക്കെ കടക്കുന്ന അങ്ങനെ പല ഇത് കാണാന് പറ്റും അതൊക്കെ കാണുമ്പോഴത്തേനും അവർക്ക് പിന്നെ ഇതാവും ഒത്തിരി സന്തോഷമാവും പിന്നെ കുട്ടനാട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് അതൊക്കെ കഴിക്കാൻ വളരെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോള് അതൊക്കെ നല്ല ചൂടോടെ ഉള്ള കരിമീൻ പൊള്ളിച്ചത് പിന്നെ നമ്മുടെ എന്നാ പിന്നേ പതി എന്നാ ഇത് താറാവ് കറി ചൂട് താറാവ് കറി ഒക്കെ അതൊക്കെ കൂട്ടി അവര് പാലപ്പോ ഒക്കെ കഴിക്കുമ്പോള് അതിൻറ്റേതായ ആ ഒരു ടേസ്റ്റ് ഒരു ഒരു സ്വാദ് അത് അവർക്ക് മനസ്സില് പറഞ്ഞാൽ പറഞ്ഞ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വാങ്ങിക്കൊടുത്ത് അവരെ കഴിപ്പിക്കും പിന്നെ നല്ല തെങ്ങിൻ കള്ള് തെങ്ങിൻ കള്ളെന്നു പറഞ്ഞാല് നല്ല മധുരക്കള്ള് മധുരക്കള്ളെന്നു പറഞ്ഞു വിശേഷിപ്പിക്കുന്ന നല്ല കള്ള് കിട്ടും അത് ഒറിജിനല് തന്നെ ഒരു മായവും ചേർക്കാത്ത അതിൻ്റെ കൂട്ടത്തില് നല്ല കപ്പക കപ്പ വേവിച്ചതും പിന്നെ കൊഞ്ച് കറിയും അതൊക്കെ കൂട്ടി അവർക്കൊക്കെ അത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഇതാണെന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ഇതാണെന്നു പറഞ്ഞ് അവരെ പറഞ്ഞുമനസ്സിലാക്കും പിന്നെ അതിൽനിന്ന് അവർക്ക് ന്നാ സൈഡില് ഇങ്ങനെ മറ്റേ ബോട്ടേന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കൂടും സി അവരുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അവരെ എല്ലാം കാണിച്ച് കൊടുക്കും അത് അതായത് തുണി ഐറ്റംസ് ഫ്രൂട്സുകള് ന്നെ പിന്നെ ഈ നല്ല ഫ്രഷ് ഫ്രഷ് മീന് മീനുകള് അതൊക്കെ വാങ്ങിക്കാന് അത് വാങ്ങിക്കാനൊക്കെ അവരെ സഹായിക്കും പിന്നെ പിന്നെ ക്ക് നല്ല കരിക്ക് ആ കരിക്ക് വെള്ളം അവരൊക്കെ കണ്ടിട്ടും കുടിച്ചിട്ടുമൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഈ കരിക്കെന്ന് പറയുന്ന സാധനം അത് വാങ്ങിച്ച് അതങ്ങനെ കുട്ടനാട് ഭാഗത്തുള്ള ചിറ സൈഡില്ക്കൂടെ നടന്ന് അവിടത്തെ ഇളം കാറ്റുകള് പിന്നെ പച്ചപ്പ് വിരിച്ച എന്നാ നെൽപാടങ്ങളിലൂടെ നടന്ന് അവിടൊക്കെ പോയി നമ്മള് ഫോട്ടോയക്കെ എടുക്കുക അവർക്ക് എപ്പോഴും ഒരു കുളിർമ ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള സ്ഥലങ്ങളും ഇതൂമൊക്കെ ക കാണിച്ച് നെ അവർക്ക് തൃപ്തിയാകുമ്പോള് അതെ അവര് ശരിക്കും ഇതെല്ലാംകൂടെ കണ്ട് കഴിഞ്ഞ അവര് പോകാത്ത പോലൊരു മനസ്സ് ഇതായി മാറും പിന്നെ അവരുടെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടവര് വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊക്കെ കണ്ട് കഴിയുമ്പോള് അവര് കുറേ സമയത്തേക്കെങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് ഫ്രഷാക്കാൻ ഉള്ള ആ ഒരു ഇത് കിട്ടും അങ്ങനെ നേ കുട്ടനാട് പുഴകളും നദികളും ഒക്കെ കാണിച്ച് ന് അവരെ കൂടുതൽ ഇങ്ങനെ പിന്നെ ന്ന എന്തുവാ താറാവ് അങ്ങനെ വെള്ളത്തില്ക്കൂടെ പോവുന്നതും അതൊക്കെ കാണുമ്പോള്ത്തന്നെ ഒരു അന്നേരം അത് പോവുന്നെ അതൊക്കെ കാണുമ്പോള് അവർക്കൊരു സന്തോഷം തോന്നും ഇതൊക്കെ പറഞ്ഞിങ്ങനെ അവര്ക്കു കൊടുക്കും